കേരളത്തിലെ പതിനാല് ജില്ലകളിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും മലയാളം സംസാരിക്കുന്ന വ്യക്തികൾ ഉണ്ട് നാല് കോടിയോളം ജനങ്ങൾ മലയാളം സംസാരിക്കുന്നതായിട്ടാണ് കണക്ക് മലയാളികൾ മലയാളം പറയുന്നതുപോലെ മറ്റ് ഏത് ഭാഷക്കാർക്കും മലയാളം സംസാരിക്കാൻ കഴിയുന്നില്ല ഓരോരുത്തരെയും സ്വാതന്ത്ര്യമാണ് ഏത് ഭാഷയിൽ സംസാരിക്കണമെന്നുള്ളത് മറ്റുള്ളവരുമായിട്ടുള്ള ഫീലിംഗ്സ് മനസ്സിലാക്കുന്നതിന് അവരുടെ ഭാഷ വളരെയേറെ ഉപകാരപ്പെടുന്നുണ്ട് മലയാളികൾ അവരുടെ ഭാഷ ഉപയോഗിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് കേരളത്തിൽ തന്നെ പതിനാല് ജില്ലയിലും വ്യത്യസ്ത രീതിയിലാണ് മലയാളം ഉപയോഗിക്കുന്നത് അച്ചടി ഭാഷ അല്ലാതെ തന്നെ പല രുചികളിലാണ് മലയാള ഭാഷകൾ എത്തുന്നത്